ഞാന് സുപ്രധാന തീരുമാനം എടുക്കുന്ന ടൈമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഇപ്പം ഒരു ജോലിക്ക് പോകുവാണെങ്കിലും ഇല്ലെങ്കില് ഒര് വണ്ടിയെടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ടും എടുക്കാറുള്ള തീരുമാനങ്ങളാണ് അപ്പം ഞാൻ കൂടുതലായിട്ടും ചോദിക്കാറുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എൻ്റെ ഭാര്യയോട് മാത്രമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഒരു തീരുമാനം എന്താണോ ആതിനനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകുക എന്ന് വേണമെങ്കിൽ പറയാം കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം ഒരു ജോലിക്ക് കയറുവാണെങ്കിൽ തന്നെ ഞാൻ അവളോടാണ് അഭിപ്രായം ചോദിക്കുക എന്താ ചെയ്യണ്ടത് അപ്പം അവൾ പറയും ഒന്ന് പോയി നോക്ക് അന്നിട്ട് പറ്റില്ലെങ്കിൽ പോര് എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു അപ്പം ഞാനതൊക്കെ നോക്കിയിട്ടാണ് എന്താ പറയുക അവളോട് കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കെന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് ഞാനവളോടാണ് സംസാരിക്കുക അപ്പം അവൾ പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാന് എനിക്ക് ടെൻഷനും കാര്യങ്ങളക്കെ കുറയുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ അതുകൊണ്ട് ഞാനൊരു സുപ്രധാന തീരുമാനം എടുക്കുവാണെങ്കില് എന്തായാലും എൻ്റെ ഭാര്യയും പിന്നെ അമ്മയും അമ്മയുണ്ട് അമ്മ അമ്മയോടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അമ്മയും ഇതേപോലെ എന്തെങ്കിലും അമ്മ പിന്നെ നല്ലോ നല്ല രീതിയില് പറഞ്ഞ് തരും അങ്ങനെ നിന്നാൽ മതി നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീ ഇങ്ങ് പോരെ എന്ന് അമ്മയും പറയുമായിരുന്നു ആദ്യം ഞാൻ അമ്മയോടാണ് ചോദിക്കുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രമെ ഞാൻ ഭാര്യേനോട് ചോദിക്കാറുള്ളൂ അപ്പം അമ്മ എന്നോടിങ്ങനെ കാര്യം പറയും അപ്പം അവിടെ പറ്റില്ലെങ്കിൽ നീ പോര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെ എന്നോട് പറയുമായിരുന്നു